ഇരുപത്താറ് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത് പത്ത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്